രണ്ട് രണ്ട് രണ്ടായിരത്തി ഒമ്പത് രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഒമ്പത് രണ്ട് പത്ത് രണ്ടായിരത്തി ഒമ്പത് രണ്ടെ പതിനൊന്ന് രണ്ടായിരത്തി ഒമ്പത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഒമ്പത്